പരിസ്ഥിതി വെല്ലുവിളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വേസ്റ്റുകള് ഒക്കെ കൊണ്ടുപോകാന് ഒക്കെ വേണ്ടി പ്ലാസ്റ്റിക് നിരോധനം ഇതൊക്കെയായിട്ട് വീട്ടിൽ വന്നു അവർ എടുത്തിട്ടു പോകാറൊക്കെ ഉണ്ട് പരിസ്ഥിതിയൊക്കെ ക്ലീന് ആയി കിടക്കുന്ന ചില മേഖലകളില് ടൗണുകളിൽ അങ്ങനെയുള്ള അവിടെ ചിലപ്പോൾ ക്ലീന് ഇല്ലാതെ ഇരിക്കുക അല്ലാതെ പ്രദേശങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുവിധം എന്താണ് ഇങ്ങനെ പഞ്ചായത്ത് നിന്നൊക്കെ വന്ന് അവരിങ്ങനെ വേസ്റ്റുകള് കൊണ്ടുപോകാറുണ്ട് പിന്നെ നമുക്ക് വെള്ളം വരുന്നതായ ഡാമുകളൊക്കെ നമ്മുടെ അടുത്തുണ്ട് അതുകൊണ്ട് വേനല്ക്കാലത്തായാലും കനാലുകളിലൂടെയെല്ലാം വെള്ളം വരാറുണ്ട് നമുക്ക് ആവശ്യമായ കൃഷി ചെയ്യാനും എല്ലാറ്റിനും തന്നെ നല്ല രീതിക്കുള്ള വെള്ളസൗകര്യം തന്നെ ഇവിടെ ലഭിക്കാറുണ്ട് വനങ്ങളായാലും നമ്മുടെ ഈ പാലക്കാട് ജില്ല എന്ന് പറയുമ്പോൾ തന്നെ നിറയെ വനങ്ങള് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് പാരിസ്ഥിതികരണമായ ഒരു ഇതാണ് അങ്ങനെ നല്ല രീതിക്ക് പിന്നെ മരങ്ങള് ചിലവർ അവിടെയൊക്കെ മരങ്ങള് മുറിക്കലും ഓരോ ഇതിനു വേണ്ടി ഫ്ലാറ്റുകള് വരിക അങ്ങനെ ഇതൊക്കെ പരിസ്ഥിതിപരമായ നാശങ്ങളും സംഭവിക്കാറൊക്കെ ഉണ്ട്